ഈ ഫോൺ ഈ ഐക്ക്യുൻറെ സെഡ് ത്രീ ഫോണും മറ്റു ഫോണുകളെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ വില വളരെ കുറവും എന്നാൽ ഫീച്ചേഴ്സ് എടുത്തുനോക്കുമ്പോൾ മറ്റ് ഫോണിനെക്കാളും കൂടുതലായിട്ടുള്ള സവിശേഷതയും ഈ ഫോണിനുണ്ട് ക്യാമറ എടുക്കുകയാണെങ്കിൽ ഇതേ വിലക്കുള്ള മറ്റ് ഫോണുകളിനെ അപേക്ഷിച്ച് രണ്ട് ഇരട്ടിയാണ് ഈ ക്യാമറയുടെ ഒരു ക്ലാരിറ്റിയും പെർഫോമൻസും അതുപോലെത്തന്നെ ഫോണിൻറെ ഒരു ഒരു പെർഫോമൻസ് എടുത്തുനോക്കുകയാണെങ്കിൽ മറ്റു ഫോണുകളെക്കാളും മികച്ച രീതിയിൽ ഒരു ഒരു അനുഭൂതി നമ്മൾക്ക് ഈ ഫോണിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ബാറ്ററി ബാക്കപ്പും എല്ലാം മറ്റു ഫോണുകളെ അപേക്ഷിച്ച് ഈ വിലയ്ക്ക് നമുക്ക് വലിയൊരു വലിയൊരു കാര്യം തന്നെയാണ് ഈ വിലയ്ക്ക് നമുക്ക് മറ്റു ഫോണുകളേക്കാളും ഫീച്ചറും എല്ലാം ഈ ചുരുങ്ങിയ വിലയ്ക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽത്തന്നെ വലിയൊരു കാര്യമാണ്